വിഷയം വരുന്നുണ്ട് അതിന് ശേഷം ഇതിന്റകത്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമ് ഇങ്ങനെയുള്ള ഐറ്റം വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തകളാണ് പലപ്പോഴും വന്നോണ്ടത് വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തകളിലകത്ത് പലരും പിടിക്കപ്പെടുന്നുണ്ട് അങ്ങനത്തെ മാധ്യമങ്ങൾ പണ്ട് ഉണ്ടായിരുന്നപ്പം നമുക്ക് കുറെ സത്യസന്ധമായ വാർത്തകളതിൽ വരുന്നുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ വാർത്തകൾ അല്ല വരുന്നത് പലരേം ചതിക്കുഴീൽ ആക്കുന്ന വാർത്തകൾലേക്ക് പലരും വീണ് പോവുന്നുണ്ട് അത്കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്നത് ഫോണായേൻ്റെ പേരിൽ എല്ലാ കാര്യത്തിനും ഫോണാണ് ആൾക്കാർക്ക് ആവശ്യം വരുന്നത് ബാങ്കിൻ്റെ ആവശ്യങ്ങൾക്ക് ആണെങ്കിലും മറ്റ് കുട്ടികളുടെ പഠനം ആവശ്യങ്ങൾക്ക് മറ്റ് നമ്മുടെ കൃഷിയെ പറ്റി പഠിക്കുന്നതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം അറിയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിൻറ്റാത്തെല്ലാ ന്യൂസ്കളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതീലല്ല കേൾക്കുന്നത് അതാണ് നമുക്ക് പറ്റുന്നത് ഒരു ആ കാര്യം പിന്നെ നമ്മുടെ ഇത്കൊണ്ട് ഉപയോഗം എന്ന് പറയുന്നത് ഇന്നത്തെ ജീവിതത്തിൽ ഇപ്പോൾ പത്രത്തേക്കാൾ കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത് ഫോണാണ് ഫോണ് എല്ലാ കുടുംബങ്ങളിലും രണ്ടും മൂന്നും നാലുവൊക്ക ഉപയോജിക്കുയന്നതിന്റെ കാരണം എല്ലാവർക്കും എല്ലായിടത്തുന്നു കാര്യങ്ങൾ അറിയാനും എവിടെയാണ് എന്ത് വേഷം നടന്നാലു ഓൾറെഡി നമ്മളെ കൈത്തുമ്പിൽ എത്താനും നമുക്ക് പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഫോണെന്നുള്ളത് കൊണ്ട് എല്ലാവരും അത് ഉപയോഗിക്കിന്നു എളുപ്പമാണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നത് പക്ഷേ ന്യൂസ്കൾ പലതും ഇതിന്റകത്ത് വരുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ആയത് കൊണ്ട് നമുക്ക് അത്രേം ഇതിനോട് താല്പര്യമില്ല പിന്നെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റോം കൂടുതൽ ടി വിയാണ് ടി വിയിലെ വാർത്തകളാണ് നമ്മൾ അത് ചില സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ കണ്ട് കണ്ട് മടുത്ത വാർത്തകളാണ് വരുന്നത് ഒരു ദിവസം തന്നെ നാലും അഞ്ചും പ്രാവശ്യങ്ങളിൽ ഈ വാർത്തകൾ കേൾക്കുന്നത് അത് തന്നെ ഒരാഴ്ച വിട്ടോടുന്ന ചില ചാനല്കളുണ്ട് അത്കൊണ്ട് പത്രമാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് മലയാള പത്രങ്ങൾ വായിക്കുക വായിക്കും തോറും ആണ് വളരുന്നത് വായന കുറയുമ്പോഴാണ് പറ്റുന്ന ഒരു കുഴപ്പം